അപ്പോൾ നമ്മൾ അവിടെ കായികം കയികപരമായി കളിക്കാനൊക്കെ ആയിട്ട് ഗ്രൗണ്ട് അത്പോലെ തന്നെ ടര്ഫുകള് സ്റ്റേഡിയങ്ങള് അങ്ങനെ പലതുമുണ്ട് അവിടെ നമ്മൾ കളിക്കാനും പോവാറുണ്ട് പിന്നെ ടൂര്ണമെൻ്റുകള് നടക്കാറുണ്ട് ഫുട്ബോള് ക്രിക്കറ്റ് അങ്ങനെ ഉള്ള പല ഇതുകള് നമ്മൾ ടൂര്ണമെന്റ് നടത്താറുണ്ട് അതുപോലെ തന്നെ ഓളീബോള് അങ്ങന പല ഗേയ്മുകള്ക്കും ടൂര്ളമെന്റ് നടത്താറുണ്ട് പിന്നെ അതിനായിട്ട് സ്പോണ്സറ് സ്പോണ്സേഴ്സ് ഉണ്ട് ട്രോഫി ക്യാഷ് പ്രൈസ് അങ്ങനെ ഒക്കെ സ്പോണ്സറ് ചെയ്യാന് ആളുകളും ഉണ്ട് പിന്നെ ഈ കായികപരമായി നമ്മള് കൂടുതലും നമ്മൾ ഫുട്ബോളാണ് കൂടുതലും കളിക്കുന്നത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കാന് വേണ്ടി പോവുന്നതും ഗ്രൗണ്ടുകളിലൊക്കെ ഫുട്ബോൾ ആണ്

കോളേജ് ഗ്രൗണ്ടാണെങ്കില് നമ്മൾക്ക് ഫ്രീ ആണ് അങ്ങനെ പൈസയുടെ ആവശ്യം പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ എനിക്ക് ഗ്രൗണ്ടുകളെ ഇതിനെ കുറിച്ച് പറയാൻ ഉള്ളത് നമ്മളെ നാടുകളിൽ കായികങ്ങളിലായിട്ട് സൗകര്യങ്ങളുണ്ട്